ഹലോ പറഞ്ഞോ ചേച്ചി ആണോ ചേച്ചി ഓക്കെ താങ്ക് യു താങ്ക് യു ചേച്ചി ആ ആ ശരി ചേച്ചി ശരി എന്നാൽ ആ കുഴപ്പം ഇല്ല

ആ ശരി ചേച്ചി ഓക്കെ ആ കുഴപ്പമില്ല ആ ആ ഉണ്ട് ഉണ്ട് കുഴപ്പമില്ല ചേച്ചി കുഴപ്പമില്ല ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് അതിൻറേതായിട്ട് ചേച്ചി പറയുക അറിയാവുന്നവരോടൊക്കെ പറഞ്ഞ് വിട്ടേക്കണം കേട്ടോ ചേച്ചി ആ ആ ഓക്കെ ആ പറഞ്ഞേക്കണം കേട്ടോ ചേച്ചി ആ ആ കുഴപ്പമില്ല ചേച്ചി ആ മുടി നല്ലത് പോലെ കെയർ ചെയ്യാൻ പറയണം നല്ല ഷാംപൂ ഞാൻ പറഞ്ഞ ഷാംപൂ ഒക്കെ ഉപയോഗിക്കണം ആ അങ്ങനെ ഒരു കല്യാണ ആ കല്യാണ സീസൺ ഒക്കെ വരുമ്പം പറഞ്ഞു വിട്ടാൽ മതി കേട്ടോ ചേച്ചി ചേച്ചി അപ്പം അറിയാവുന്നവരോട് ആ അങ്ങനെയുള്ളവരോട് പറയുക ഒത്തിരി പേരോട് പറഞ്ഞറി ചേച്ചിക്ക് അറിയാമല്ലോ നമ്മുടെ ആ ഒരു കടയുടെ ആ ഒരു സർവീസ് ചേച്ചിക്ക് അറിയാമല്ലോ അപ്പോൾ അതനുസരിച്ച് എല്ലാവരോടും ആ എല്ലാവരോടും കൂടെ ഒന്ന് പറഞ്ഞേച്ച് ആ എല്ലാവരോടും ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ ചേച്ചി ആ ആ ഓ ആ അത് നമുക്ക് ആരാണെന്ന് വെച്ചാൽ നമ്മൾ അതനുസരിച്ച് ആ സർവീസ് ഞങ്ങൾ ചാർജ് ഒക്കെ കുറച്ച് കൊടുക്കുമല്ലോ ചേച്ചി അതനുസരിച്ച് എല്ലാവരോടും പറഞ്ഞ് വെച്ചേക്കണം കേട്ടോ ആ ആ ആ ആ കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞേച്ചാൽ മതി പറഞ്ഞേച്ചാൽ ചേച്ചിക്ക് അറിയാമല്ലോ നമ്മുടെ കടയുടെ ആ കളർ ചെയ്യുന്നത് ആ ചേച്ചി ആ കളർ ചെയ്യുന്നതിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ ചേച്ചിക്ക് അപ്പം അതൊന്ന് എല്ലാവർക്കുമായിട്ട് പറഞ്ഞ് കൊടുത്തേക്കണം ആ ചെ ആ ചെയ്യാം ആ കൊ ആ ചെ ആ ഓക്കെ ആ ആ പറ ആ കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല ചേച്ചി പറയുന്ന കണക്ക് ഇരിക്കും എനിക്ക് അടുത്തായിട്ട് സർവീസിൻ്റെ ഇത് കേട്ടോ അങ്ങനെ ആ ഇതെല്ലാം ആ ഓക്കെ ഓക്കെ ആ ആ എല്ലാവരോടും ചേച്ചി ഒന്ന് പറഞ്ഞേക്കണം പിന്നെ ചേച്ചി പറയണം ഒരുപാട് റേറ്റ് ഒന്നും ഇല്ല ഏ നല്ല ഒരു ആ ആ നല്ല ആ ആ കുറവാണ് ആ ആ അത് ഓക്കെ ആ ആ ആ ആ ശരി ആ ആ ശരി ചേച്ചി ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ